അപ്പം ഈ ഭാഷകൾ രണ്ട് രീതീലെങ്ങനാണ് വ്യത്യസ്തമാക്കുക എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ സ്വന്തം മലയാളം നമ്മുടെ മലയാള ഭാഷ നമ്മുടെ മലയാള ഭാഷ വളരെ പ്രൊഫഷണലായ രീതിയിലും നമ്മൾ അത് വളരെ ലീനിയൻറ്റായിട്ടും ഇൻഫോമ്മൽ വേഡ്സ്സ് യൂസ് ചെയ്യാതെ മാന്യമായ വാക്കുകൾ യൂസ് ചെയ്താണ് നമ്മൾ മലയാള മലയാള ഭാഷ സംസാരിക്കുന്നതും എഴുതുന്നതും വായിക്കുന്നതും ആണേലും ഇപ്പം നമ്മുടെ വീടുകൾ ബാഷ് അത് കേരളത്തിലെ ഓരോ റീജിയണൽ ബേയ്സ്ഡ് റീജ്യൺ റീജ്യൺ ബേയ്സ്ഡ് ആയി ആണ് മോസ്റ്റ്ലി ഇപ്പം എറണാകുളം സൈഡിലുള്ളവർക്കൊരു പ്രത്യേക തരം ആക്സന്റ് ഉണ്ട് പക്ഷേ എറണാകുളത്ത് എറണാകുളത്ത് ഉള്ള എറണാകുളംകാർക്കുള്ള ആക്സന്റ് അല്ല ഈ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട്ടുകാർക്കുള്ള ആക്സൻറ്റ് അവരുടെ ആക്സൻറ്റ് വളരേ വ്യത്യസ്തമാണ് പോരാതെ കൂടാതെ ഇതിന് ആക്സന്റ് മാത്രമല്ല വ്യത്യസ്തമായി വരുന്നത് വാക്കുകള് അർത്ഥം അർത്ഥത്തിനും വളരെ വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങളാണതിനുള്ളത് വ്യത്യസ്ഥ ഒരേ വാക്കിന് പല പല അർത്ഥങ്ങളാണ് മലയാള ഭാഷ മലയാള ഭാഷ ഇൻഫോർമ്മലായ മലയാള ഭാഷയ്ക്കുള്ളത് ഇൻഫോർമലായ മലയാളത്തിനുള്ളത് നമ്മുടെ വീടുകളിൽ സംസാരിക്കുന്ന മലയാളത്തിനുള്ള ഒരു ഒരു വ്യത് ഒരു സംഭവം അതാണ് അപ്പം നമുക്ക് ആക്സന്റ് പരമായി നമുക്ക് ഫോർമ്മല് മലയാളത്തെയും ഇൻഫോമ്മൽ മലയാളത്തെയും നമുക്ക് വ്യത്യാസപ്പെടുത്താം പോരാതെ അതിനുള്ള ആക്സെൻറ്റും ആക്സൻറ്റ് ആക്സൻറ്റ് മാത്രവല്ല ആ വാക്കുകളുടെ അർത്ഥ അർത്ഥ വ്യത്യാസമൊരുപാട് വലിയ രീതിയിലായിട്ട് നമുക്ക് ഇത് കാണുന്നുണ്ട്